ഞാൻ കോളേജിൽ ഓണത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പായസ മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഞാനുൾപ്പടെ പത്ത് പേരാണ് അന്നുണ്ടായിരുന്നത് ആദ്യം വെറുതെ ഒരു രസത്തിനാണ് പങ്കെടുത്തത് കാരണം ഞാൻ ആദ്യമായിട്ടാണന്ന് പായസമുണ്ടാക്കിയത് തന്നെ ഒരു സോസ്പാനിൽ പാ പാലെടുത്തിട്ട് ഗ്യാസിൽ വെച്ച് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ചേർത്തിളക്കി ഗ്യാസിൻ്റെ സിമ്മ് വളരെ സ്ലോയിലാണ് വെച്ചിരുന്നത് എന്നിട്ട് സാവധാനം ഇളക്കി ഇളക്കി ഇളക്കി അത് കുറുക്കിയെടുത്തു അവസാനം നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് അതിലേക്ക് ചേർത്തു വളരെ നല്ലഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് ഫസ്റ്റൊന്നും കിട്ടിയൊന്നുമില്ല എന്നാലും ആദ്യമായിട്ട് പായസം ഉണ്ടാക്കിയതിലെനിക്ക് വളരെയധികം സന്തോഷം തോന്നി